കോഴിക്കോട് റെസ്റ്റോറൻറ്റ് ആണോ നമ്മളിവിടെ കോയമ്പത്തൂരിന്ന് വിളിക്കുന്നത് ആണ് അത് നമ്മൾ കുറച്ച് പാർട്ടി ആയിട്ട് നമ്മൾ നമുക്ക് ചെറിയ ഒരു പാർട്ടി പരിപാടി ഉണ്ട് അപ്പം അതായത് മോർണിംഗ് ആണ് അപ്പം നമുക്ക് പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഒന്നര വൺ ആൻഡ് ഹാഫ് ഹവേഴ്സിൻ്റെ പരിപാടിയെ ഉള്ളൂ അപ്പം നമുക്ക് അവിടെ നമ്മളൊരു നൂറ്റൻപത് പേര് ഉണ്ടാവും അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതായത് ട്രഡീഷണൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അറേഞ്ച് ചെയ്ത് തരുവോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് എങ്ങനെ ആ എന്തൊക്കെയാണ് ഉള്ളത് നിങ്ങളുടെ അവിടെ എന്തൊക്കെയാണ് ഉള്ളത് അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളത്

നമ്മളെ അതായത് ട്വൻറ്റി ഫൈവ് അതെ അതെ അതെ നമുക്ക് അതായത് അപ്പവും ചിക്കൻ സ്ട്യുവും മതീട്ടോ നമുക്ക് ഒരു നൂറ്റൻപത് പേർക്ക് ഉള്ളതാണ് പറഞ്ഞത് എന്നാലും ഒരു നൂറ്റി എൺപത് പേർക്ക് ഉള്ളത് ആക്കിക്കോളൂ

നമ്മൾ ട്വൻറ്റി ഫിഫ്ത്തിന് കൺഫോമാണ് കേട്ടോ ഓക്കെ എന്നാൽ നിങ്ങൾ എല്ലാം ഒന്ന് സെറ്റ് ആക്കി വെക്കൂ എന്തായാലും നമ്മൾ ഉറപ്പ് പറയാ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൂഗിൾ പേയിൽ എന്തെങ്കിലും ക്യാഷ് അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ അത് ചെയ്ത് തരാട്ടോ ഓക്കെ എന്നാൽ നിങ്ങൾ വിളിച്ചാൽ മതി